ആ എന്താണ് പ്രശ്നം എത്ര ദിവസമായി മരുന്ന് ഒന്നും കഴിച്ചിട്ടില്ലേ ആ ഞാൻ ഇന്ന് ആറ് മണി വരെ ക്ലിനിക്കിൽ ഉണ്ട് വരുന്നോ ആറ് മണി വരെ ഉണ്ട് ആ ആ അഞ്ച് മണി ആവുമ്പോൾ വന്നോളൂ എത്ത് ആ എന്താണ് തലവേദന എന്താണ് തലവേദന വന്ന സമയം

ഗുളിക ചീത്തയായിട്ടില്ലേ ഒന്നും കഴിച്ചിട്ട് വേറെ ഒന്നും ടാബ്ലെറ്റോ ഇല്ല അല്ലേ

ആ പല കാരണം കൊണ്ട് വരാം ഇപ്പോൾ മഞ്ഞും തണുപ്പ് എല്ലാം അല്ലേ അപ്പോൾ ചുമ നല്ല വണ്ണം ഉണ്ടോ ആ ഇപ്പോൾ അങ്ങനത്തെ ചുമ ആ തൊണ്ടയിൽ ഇങ്ങനെ ഒരു വൈറസ് നിന്നിട്ട് അപ്പോൾ ഇവിടെ വന്നോളൂ മരുന്ന് തരാം അഞ്ച് മണി ആവുമോ ആ ആ പേഷ്യൻറ്റ് ഉണ്ടാവും വേഗം വന്നിട്ട് ടോക്കൺ എടുത്തോളൂ

വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ

അപ്പോൾ അഞ്ച് മണി ആവുമ്പോൾ വരും അല്ലേ ആ കഴിയുന്നത്ര വേഗം വന്നോളൂ പിന്നെ പേഷ്യൻറ്റ് ഇല്ലെങ്കിൽ ഞാൻ വേഗം പോവും

ജോലി ചെയ്യുന്നുണ്ടോ ആ അടുത്ത് തന്നെ ഞാൻ ഇവിടെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിങ്ങളെ ഓഫീസ് എവിടെ അടുത്ത് തന്നെ അല്ലേ ആ ആ ആ ആ

ഓക്കെ

ഓക്കെ ബൈ ബൈ